ആരാണ് സംസാരിക്കുന്നത്

ആ ആ ആ ആ റോസ് ചൊമര ഉണ്ട് മഞ്ഞ ഉണ്ട് വെള്ള ഉണ്ട് ആ ആ അത് എല്ലാത്തിനും ഒരു വില തന്നെയാണ് കിലോ കണക്കാണേ ആ അപ്പം ഇരുന്നൂറ് രൂപ ഒക്കെ ആവുവായിരിക്കും ആ ആ അപ്പോൾ അതൊരു ഇരുപത് കിലോയേലും വേണ്ടി വരും ആ ആ ആ മുല്ലപ്പൂ നേരത്തെ ഒക്കെ പിന്നെ കെട്ടിയതാണെങ്കിൽ ഒരു മുഴം വച്ചായിരുന്നു ഇപ്പോൾ അതല്ല അതിപ്പം മീറ്ററ് കണക്കിനാണ് ഒരു മീറ്ററിന് ഇത്ര രൂപ വെച്ചാണ് എത്ര മീറ്ററ് വേണം ആ ഒരു ആ പതിനഞ്ചാവുമ്പം പതിനഞ്ചും അത് എന്നാൽ ആ വേണം ഇത് പതിനഞ്ചാവുമ്പം ഒരു ഏഴ് എട്ട് മീറ്ററെങ്കിലും വേണം അത് മൊട്ടായിട്ടെടുക്കാൻ അതല്ല എന്നാന്നറിയോ മൊട്ടായിട്ടാവുമ്പം സമയത്ത് നല്ലതായിട്ട് വിരിഞ്ഞ് നല്ല ഫ്രഷായിട്ടിരിക്കും പൂവാവുമ്പം ഇച്ചിരി വാട്ടലും ഒക്കെ വരുവേ ആ മുല്ലപ്പൂവ് രാവിലെ വന്നാൽ മതി രാവിലെ എല്ലാം റെഡിയാക്കി ഞങ്ങൾ വെച്ചോളാം വന്ന് ആ അവിടുന്ന് വാങ്ങിച്ചോണ്ട് പോയാൽ മതി രാവിലെ ഒരു ആ രാവിലെ ഒരഞ്ചഞ്ചര ഒക്കെ ആവുമ്പോഴത്തേക്കിന് പോരാ എന്നിട്ട് വന്നിട്ട് കണക്കും ഒക്കെ ബില്ലൊക്കെ തരാവേ റോസെടുത്ത് വെക്കണം ഇപ്പോഴേ റോസും രാവിലെ എടുത്ത് വെച്ചാൽ മതിയോ ആ പിന്നെ നിങ്ങളുടെ സ്ഥലം എവിടാണ് ഇത് വേണോ ആ ഞങ്ങൾ ചങ്ങനാശ്ശേരിയാണപ്പം ചങ്ങനാശ്ശേരി ആ എന്നാൽ അരമനേടടുത്തായിട്ടുള്ള കടയാണ് അവിടെ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആവുമ്പം ഞങ്ങളവിടെ കാണും അപ്പോഴത്തേക്കേന് വന്നോ ആ അവരത് കളക്ററ് ചെയ്തിട്ട് ബില്ലടച്ചാൽ മതി ആ വേറെന്നാ ആ ആ ആ ശരി ഈ നമ്പര് അല്ലെങ്കിൽ വിളിച്ചാൽ മതിയേ അന്നിട്ട് അവിടെ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി കണ്ടില്ലെങ്കിൽ ആ ശരി ശരി ഓക്കെ എന്നാൽ ആ